ഇപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഒട്ടും തന്നെ സമയം ഇല്ലാത്തൊരു കാലയളവാണ് ധാരാളം ഒരു വ്യക്തിക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങള് ഉള്ള ഒരു ഈ കാലയളവിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു സ്വന്തം ഉത്തരവാദിത്തങ്ങളോടൊപ്പം അതിൻറെ കൂടെത്തന്നെ എന്തെങ്കിലും ഒരു ഒരു ക്രാഫ്റ്റോ എന്തെങ്കിലും ഒരു വര്ക്കും കൂടെ നമ്മൾ പഠിക്കണം അത് അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ അപ്പോൾ ഇത് ഇതിന്റെ കാര്യം പറയുവാണെങ്കിൽ ധാരാളം ഇപ്പം ഒരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂറത്തെ സമയം മുഴുക്കെ തികയാത്ത ഈ കാലയളവിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളോടൊപ്പം തന്നെ നമ്മളീ നെയ്ത്ത് ജോലി നമ്മൾ ഈ തയ്യല് പണി കൊണ്ടുപോവുന്നുണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങള് നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടെ സമയ ലബ്ധിതമായും നമ്മൾ ചെയ്ത് തന്റെ പ്രവര്ത്തനങ്ങളെ എല്ലാം നന്നായി ചെയ്ത് അതിനോടൊപ്പം നമ്മൾ സമയം കണ്ടെത്തി നമ്മുടെ ജ് നമ്മൾ ഈ നെയ്ത്ത് നെയ്ത്തിന്റെ അതായത് നമ്മൾ ഈ തൂന്നല് പണി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോവുന്നു അപ്പം ആ ഒരു ആ ഒരു സമയത്തിൽ അതായത് സമയ ലബ്ധിതമായി ഇത് കൊണ്ടു പോകുവാന് വേണ്ടി നമ്മൾ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ മുന്കൂട്ടി കണ്ട് നമ്മൾ പ്രവര്ത്തിക്കുന്നു അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുന്നു ഇപ്പോൾ നമ് ഇപ്പോഴത്തെ നെയ്ത്ത് ത നെയ്ത്തിന്റെ അതായത് തയ്യ തയ്യല് ജീവിതം എന്ന് പറയുന്നത് വളരെ തയ്ച്ച് കൊടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കാരണം നമ്മൾ പുറത്തോട്ട് പോകാനും നമ്മളത് സമയം കണ്ടെത്താനും ഉള്ള സാഹചര്യങ്ങള് ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു തൊഴിൽ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വളരെ അനിവാര്യമായ ഒരു കാലയളവ് തന്നെയാണ് ഈ കാലയളവിൽ നമ്മുടെ ജീവിതം കൂടുതല് കൂടുതല് എന്ന് വെച്ചാൽ അതിന് സാമ്പത്തിക നഷ്ട് സാമ്പത്തികം വേണം സമയം വേണം അപ്പം ഈ സമയങ്ങളെല്ലാം കണ്ടെത്തി നമ്മൾ ആദ്യം കുറച്ച് സമയം ഇതിനുവേണ്ടി ചിലവഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള ഏതെങ്കിലും താല്പ്പര്യങ്ങള് നിര്ത്തി വെച്ചിട്ട് നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ മാറ്റി നിര്ത്തി നമ്മൾ ഈ ഒരു തൊഴിൽ സാധ്യതകളിലോട്ട് അതായത് ഈ നെയ്ത്ത് പ്രവര്ത്തനങ്ങളിലോട്ട് മുന്നോട്ട് പോകുന്നതിന് നമ്മളെ ഒരുപാട് കാ നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ മുന്നോട്ട് ഇപ്പം എല്ലാം നമ്മൾ ആധുനിക യന്ത്രവല്ക്കരിക്കുന്ന ഈ കാലഘട്ടത്തെ നമുക്ക് സമയം കണ്ടെത്താന് യാതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ നമ്മുടെ നമ്മൾ ചെയ്യുന്ന സേവനങ്ങള് നമ്മൾ ചെയ്യുന്ന പ്രവര്ത്തനങ്ങള് എല്ലാം ഒന്ന് ക്രമീകരിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ നമ്മുടെ ചിന്തയെ നമുക്ക് ചിന്തിക്കാനുള്ളൂ എല്ലാ കാര്യങ്ങളും അതായത് നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചാലും നമ്മുടെ നമുക്കൊരു ഒരു ഒരു നമ്മുടെ വരുമാനത്തോടൊപ്പം വേറൊരു വേറെ ഒരു നമ്മുടെ സാമ്പത്തികം പുറത്ത് പോകാതെ അതായത് മറ്റുള്ളവരുടെ കയ്യില് എത്താതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സ്വയം ചെയ്യുന്നതിന് ഈ ഒരു നെയ്ത്തിന്റെ കാര്യങ്ങള് വളരെ വളരെ അത്യാവശ്യമായ ഒരു കാല കാലയളവ് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെയും മക്കളുടെയും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതിന് ഈ നെയ്ത്തിന്റെ പ്രവര്ത്തനം അത്യാവശ്യമാണ്